ചേട്ടാ ഞാൻ വിളിച്ചത് വാടകയ്ക്ക് കാർ എടുക്കാൻ വേണ്ടീട്ടാണ് എനിക്കൊരു കാർ വേണമായിരുന്നു ഇപ്പൊൾ ഒരു പത്തു പണ്ട്രഡ് സീറ്റ് ഉള്ള കാർ തന്നെ വേണം ഞങ്ങള് ഫ്രണ്ട്സായിട്ട് മൂന്നാർ ഇടുക്കി ആ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടീട്ടാണ് ഇപ്പൊരു മൂന്ന് നാല് ദിവസത്തെ യാത്രയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങടവിടെ എങ്ങനെയാണ് കാറ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്താണ് കാറിൻ്റെ റെൻറ്റ് റേറ്റ് വരുന്നത് ഒരു ദിവസം എത്ര റേറ്റ് വരും അതേപോലെ നമുക്ക്പ്പോ ഒരു ദിവസം ഇരുനൂറു കിലോമീറ്റർ മറ്റോ ആണല്ലേ ഓടുന്നെ മറ്റേ ലിമിറ്റ് ഉള്ളത് അതിൽ കൂടുതൽ കിലോമീറ്റർ ആയ വരുന്ന കിലോമീറ്റർ പെർ ചാർജ് എത്രയാകും അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു എന്നാലാണ് എനിക്ക്തിനനുസരിച്ചിട്ടുള്ള വണ്ടി ചെറുതാക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അതിൻ്റെ കിലോമീറ്റർ ചാർജും കാര്യങ്ങളൊക്കെ ഒന്നു പറഞ്ഞ് തന്നാൽ നന്നായിരിക്കും